ഞങ്ങളുടെ പ്രാദേശിക കമ്പോളത്തിൽ ഇപ്പോൾ കർഷകരുണ്ടാക്കിയ കാർഷിക ഉൽപന്നങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളത് വളരെയധികം ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർ ഇപ്പോൾ ഒരു കർഷകന് കുറച്ച് നെല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട കുറച്ച് വാഴ നട്ട് കുറച്ച് വാഴകൾ അതായത് വാഴ പച്ചവാഴ അതേപോലെ പഴുത്ത പഴം ഇതൊക്കെ അവർ കമ്പോളത്തിൽ എത്തിക്കുമ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ അവർ അത് നട്ട് കഴിഞ്ഞ് അവർ ഇതിന് അതായത് ഇതിൻ്റെയൊരു പാകമാകുമ്പോഴേക്കും ഈയൊരു സാധനത്തിൻ്റെ വില ചിലപ്പോൾ ഇടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രയാസമാണ് കാരണം ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആണ് അവർ ഈ ലെവലിലേക്ക് അതായത് ഈയൊരു കൃഷി ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിൽനിന്നും വലിയൊരു വില അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കറക്റ്റ് ആയിട്ട് അതായത് ആ ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ആ സമയത്ത് ആയിരിക്കും ഒരുപക്ഷെ ആ സാധനത്തിൻ്റെ വില ഇടിയുന്നത് അപ്പം അങ്ങനെത്തെയൊരു പ്രയാസം ഈ കർഷകർ അനുഭവിക്കുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ അതാണ് മെയിൻ ആയിട്ട് അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്നുള്ളത് പിന്നെ ഇവർ കമ്പോളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഈ കമ്പോളത്തിലുള്ള ആൾക്കാർ ഇവർ പറയുന്ന വിലക്കനുസരിച്ച് വാങ്ങാൻ തയ്യാറാവില്ല അപ്പോൾ അതാണ് അത് വേറെ ഒരു പ്രശ്നമാണ് കാരണം ഇങ്ങനത്തെയൊരു സാഹചര്യം വരുമ്പോൾ അത് ഈ കർഷകർക്ക് വല്ലാത്തൊരു പ്രയാസമാണ് പിന്നെ അതുപോലെത്തന്നെ അതിൻ്റെ വില അവർ അവർക്ക് അർഹമായിട്ടുള്ള വില നൽകില്ല പിന്നെ അതുപോലെത്തന്നെ നല്കുന്നുണ്ടെങ്കിൽ തുച്ചമായിട്ട് ഉള്ള പൈസക്കേ അവരത് വാങ്ങുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ കർഷകർക്ക് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്